ഞങ്ങളെ നാട്ടിൽ വിദ്യാർത്ഥികൾ കൂടുതലായി നേരിടുന്ന വെല്ലുവിളികൾ എന്നു പറഞ്ഞാൽ സ്കൂളുകളുടെ സ്കൂൾ പ്ലസ് റ്റു വരെയുള്ള സ്കൂളുകളാണ് നിങ്ങളുടെ നാട്ടിൽ കൂടുതലായി ഹയർ സെക്കൻഡറി ഹയർ സ്റ്റഡീസ് പഠിക്കാനുള്ള സ്കൂളുകളും കോളേജുകളും പാഠശാലകളും പഠനശാലകളും നിർബന്ധമാണ് ഇത്തരത്തിലുള്ള മികവുറ്റതായ സംഭവങ്ങൾ വന്നാല് ഗ്രാമം ഒന്നുകൂടെ ഉഷാറാകും ചെറിയ ചെറിയ വിദ്യാലയങ്ങളാണ് അധിക അധിക നാടുകളിലും നമുക്ക് കാണാന് കഴിയുക അത്തരം കളിൽ നിന്നൊക്കെ മാറിക്കൊണ്ടേ വളരെ വിശാലമായ വളരെ ആ കൂടുതലായി പഠിക്കാനും ഗവേഷണം ചെയ്യാനും പറ്റിയ വലിയ വലിയ കോളേജുകളൊക്കെ ഓരോ വിദ്യാഭ്യാസ നാട്ടിലും അത്യാവശ്യമാണ് നമ്മുടെ ജില്ലകളില് കണ്ടുവരുന്ന അത്രപോലും മറ്റു സ്ഥാനങ്ങളിലെ ജില്ലകളിൽ നമുക്കു കാണാന് കഴിയുകയില്ല എങ്കിലും ഓരോ നാട്ടിലും വളരെ സെക്കൻഡറി തലത്തിലും ഹയർ സെക്കൻഡറി ഡിഗ്രി തലത്തിലൊക്കെ ഡിഗ്രി ചെയ്യാൻ പറ്റിയ പഠിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഉപയോഗപ്പെടുത്തണം മറ്റു ബുദ്ധിമുട്ട് എന്നു പറയുന്നതു വാഹനഗതാഗത ട്രാൻസ്ഫോർമേഷൻ പോക്കുവരവു ബുദ്ധിമുട്ടാണ് ദൂരങ്ങളിലുള്ള ആളുകൾ സ്കൂളിലേക്ക് പോകാൻ വാഹന സൗകര്യം കുറവായതിനാല് അതും ഒരു ബുദ്ധിമുട്ടാണ് എന്നു നാം മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധ ഒരു കഴിവു നഷ്ടപ്പെടുകയും മറ്റും ബുദ്ധിമുട്ടാവുകയും ചെയ്യും ചെയ്യും ക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളിയായി നേരിടുന്നത് മയക്കുമരുന്നു പോലുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങളുടെ ഉപയോഗമാണ് ഇത്തരം സാധനങ്ങൾ വിദ്യാർഥിനികൾ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും നമ്മെ ആ പരിചയക്കരിൽ എന്ന് ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ്